ഹലോ ആരായിരുന്നു ആ ഓക്കെ പറഞ്ഞോളൂ ആ അതെ അല്ലോ ആരാണ് പറഞ്ഞത് ഓക്കെ ക്കേ ഓ ഫ്രണ്ട്സ് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടോ ഓക്കെ യൊക്കെ ഓ ക്ലാസ്സിക്കൽ ഡാൻസ് പഠിക്കാനാണ് ആ ട്രഡീഷണൽ ആണോ ആ ഓകെ എവിടെയാണ് വീട് എവിടെ ആയിരുന്നു മുക്കുട ആ മുരിക്കാശ്ശേരിലാണോ പഠിക്കുന്ന്ത് ആ മുരിക്കാശ്ശേരിലാണ് ഡാൻസ് സ്കൂള് എവിടെ ഓ പാവനാത്മാ കോളേജിലാണോ ഓക്കെ ഓക്കെ ഓ അപ്പം വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുണ്ട് പഠിക്കാൻ വരാൻ എളുപ്പമുണ്ട് ആ എപ്പോഴാണ് ടൈം ഉള്ളത് പിന്നെ ആ വെക്കേഷൻ വെക്കേഷൻ ടൈമിൽ ആ ഓ ഇല്ലെങ്കിൽ വൈകുന്നേരം മൂന്നര തൊട്ട് അഞ്ചു മണി വരെ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ അതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഡാൻസിൻ്റെ ഫീസ് ഒരാൾക്ക് അയ്യായിരം രൂപയാണ് ഏത് ഐറ്റം ആയിരുന്നു ഓക്കേ ഓക്കെ കഥകളി ഉണ്ട് പിന്നെ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി ആ അങ്ങനെ എല്ലാം ഉണ്ട് കേരളനടനം അങ്ങനെ എല്ലാം ഉണ്ട് കഥകളിയാണ് ആ ഭരതനാട്യം ഒക്കെ പഠിപ്പിക്കും ആ പോര് നിങ്ങൾ പേരൻസിനെ കൂട്ടികൊണ്ടു വന്നിട്ട് ചേരണം ആ ഫസ്റ്റിലെ തന്നെ മൊത്തം പൈസ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഹാഫ് അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുന്ന പോലെ തരുക മന്തിലിയാട്ടോ ആ മന്തിലി ആണ് അല്ല മന്ത്ലി ആ ഓക്കെ ഓക്കെ വീട്ടിൽ പറഞ്ഞേര് മന്ത്ലി അയ്യായിരം എത്ര മന്ത് പഠിക്കുന്നുണ്ടോ അതുപോലെ ഇരിക്കും കഥകളിയൊക്കെ ആവുമ്പോൾ കൂടുതൽ ടൈം പഠിക്കേണ്ടി വരും എന്താണ് ഡാൻസിനോട് പാഷൻ തോന്നാൻ ആ പാഷൻ തോന്നാൻ കാര്യം വെക്കേഷൻ എങ്ങനെ എങ്കിലും ഓ അങ്ങനെ മ്മ് ഓക്കേ ഓക്കെ ഞാൻ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു ആറു വർഷമൊക്കെയായി ആ എൻ്റെ അഅംബീഷൻ ആയിരുന്നു ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുക ഡാൻസ് ടീച്ചർ ആവുക എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ഇതും കൊണ്ട് തുടങ്ങിയതാണ് ഓക്കെ പാവന അല്ല കട്ടപ്പനയിലും ഉണ്ട്

ഇവിടെ എനിക്ക് വേറെ രണ്ട് ടീച്ചേഴ്സും കൂടെ ഹെൽപ്പിന് ഉണ്ട് കട്ടപ്പനയിൽ ഉണ്ട് മൂന്ന് പേര് വേറെ പക്ഷെ ഇവിടെ കൂടുതൽ ടൈമിൽ ഞാനാണ് ആ മുരിക്കാശ്ശേരിയിൽ ഓക്കെ ഓക്കെ ക്കെ വെക്കേഷൻ ടൈമിൽ പഠിക്കാം രണ്ട് മാസം ഉണ്ടല്ലോ കഥകളി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു പഠിക്കണം പിന്നെ ഡാൻസിനോട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യണം ആവുന്ന സമയത്തു വന്നു പഠിക്കേണ്ട ഒരു കളിയാണല്ലോ ഒരു കലാരൂപം ആണല്ലോ അപ്പം മനസ് കൊണ്ടൊക്കെ ഒന്ന് ഒരുങ്ങിക്കോ ആ ഓക്കെ ഓക്കെ ആ അത് ആ അതെ അതെ അതെ ആ ട്രഡീഷണൽ ഡാൻസസിനെല്ലാം സെയിം ഫീസാണ് കോസ്റ്റുംസ് ഒക്കെ എവിടെ എങ്കിലും കോംപെറ്റീഷൻസിന് പോവാനാണെങ്കിൽ ഇവിടെ നിന്ന് തരും ഇനി ഇപ്പം നിങ്ങൾക്ക് തന്നെ ആ സെപ്പറേറ്റ് പൈസ വേണം

ആ കോസ്റ്റുംസ് വേണമെങ്കിൽ നമുക്ക് ഈ ഡാൻസ് സ്കൂലിൽ നിന്ന് എടുക്കാം പക്ഷെ അതിന് ഫണ്ടാവും എന്തെങ്കിലും നഷ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം ചെറിയ ഒരു ഫണ്ട് മേടിക്കും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം മൂന്ന് മണിവരെ ഒക്കെയാണ് ഫുഡ് കൊണ്ടുവരണം ഉച്ചയ്ക്ക് ആ മൂന്ന് മണി വരെ ആ ഓക്കേ എൻ്റെ വീട്ടിൽ ആ ചേരാൻ വരുന്ന അന്ന് പേരൻസിനെ ഒന്ന് കൊണ്ടു പോര് കേട്ടോ കട്ടപ്പനെ ആ സെയിം തന്നെയാണ് ആ കഥകളി ഉണ്ട് അല്ലാത്തതും ഉണ്ട് അവിടെ

ആ ഭരതനാട്യം കഥകളി മോഹിനിയാട്ടം ഒക്കെ ഉണ്ട് ക്ലാസ്സിക്കൽ അല്ല അല്ലാത്തതും ഉണ്ട്

ഓക്കെ ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ ആ മറ്റേതിന് ഇത്രയും വരില്ല ഇതിനല്ലേ കോസ്റ്റുംസ് ഒക്കെ കൂടുതൽ ഉള്ളത് മറ്റേ നമുക്ക് തന്നെയാണെങ്കിലും കോസ്റ്റുംസ് എടുക്കാമല്ലോ ആ ആ പിന്നെ ഇതിന് കൂടുതൽ ടൈമും വരും

ശരിക്കും പഠിക്കണമെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് രണ്ട് മാസമല്ലേ വെക്കേഷൻ ഉള്ളൂ ആ ആ പറ്റും പറ്റും നിങ്ങൾക്ക് ഇന്ട്രെസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്നാൽ പെട്ടെന്ന് പഠിക്കാമല്ലോ ആ ഓക്കെ ഓക്കെ മ്മ് ഓക്കേ